ഇന്ത്യ മഹാരാജ്യത്ത് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹം ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇപ്പോൾ ഏറ്റവും കൂടുതലാഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പഞ്ചാബിൽ വാഗാ ബോഡറാണ് അതിനു കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ കേമ്പസ്സിൽ നിന്ന് ടൂർ പോയപ്പോൾ പഞ്ചാബിലെ വാഗാ ബോഡറിൽ പോയിരുന്നു അവിടെ ഇന്ത്യ പാക് സൈനികരുടെ വൈകുന്നേരം ഇന്ത്യ പാക് സൈനികരുടെ റൂട്ട് മാർച്ചും മറ്റും പരുപാടികളൊക്കെ അന്നേരത്തു ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള ട്രെയിൻ അന്ന് നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ആ ട്രെയിനിൻ്റെ സമയം അടുത്തതിനാൽ നമുക്ക് ആ സൈനികരുടെ റൂട്ട് മാർച്ച് കാണാൻ സാധിച്ചില്ല തീർച്ചയായും വാഗാ ബോഡർ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് എന്നതുകൊണ്ടൊക്കെ തന്നെ അവിടം വരെയൊക്കെ എത്തിയിട്ട് അവിടെ നടക്കുന്ന ആ ഒരു സൈനികരുടെ എന്താ പറയുക റൂട്ട് മാർച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒന്നും അറിയാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു അത് കൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി വാഗാ ബോഡറിൽ പോകണമെന്നുണ്ട്